ഓരോ പൗരൻ്റെയും അവകാശമാണ് ആധാർ ആധാർ കാർഡിലെ നമ്മുടെ വിവരങ്ങൾ അത് നമ്മുടെ ഐഡന്റിഫൈ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ബയോമെട്രിക് മെഷീൻ ഇതാണ് സംവിധാനമാണ് ആധാർ ആധാർ എന്നു പറയുമ്പോൾ അതു നമ്മൾ ആധാർ ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേ കയ്യുടെ രേഖ രേഖാചിത്രം എടുക്കുകയും നമ്മുടെ ഐ നമ്മുടെ കണ്ണുകൾ കണ്ണിൻ്റെ ഇത് കണ്ണിൻ്റെ രേഖാചിത്രം എടുക്കുകയും ചെയ്യും അതുമൂലം നമ്മൾ തന്നെയാണോ എന്നു തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കും നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഒരിടത്ത് പോയിട്ട് നമ്മുടെ ആധാർ കാർഡിലൂടെ നമ്മുടെ കൈരേഖകൾ നമ്മൾ തന്നെയാണോ ആ വ്യക്തി എന്നറിയുന്നതിനെക്കൊണ്ട് നമ്മുടെ കൈകൾ ആ ബയോമെട്രിക്ക് മെഷിനിൽ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്